തീർച്ചയായും ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ ഗ്രാമത്തിലും നിരവധി രാഷ്ട്രീയ പൗരന്മാരും രാഷ്ട്രീയക്കാരുമുണ്ട് അതുപോലെ രാഷ്ട്രീയ നേതാക്കളുമുണ്ട് എന്നാൽ നമുക്ക് വേണ്ടി നിലകൊള്ളാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും ഒരു രാഷ്ട്രീയപാർട്ടിയും രാഷ്ട്രീയക്കാരും ഉള്ളതായിട്ടില്ല കാരണം എല്ലാ അവരുടെ എല്ലാം അജണ്ട എന്നത് രാഷ്ട്രീയ സ്ഥാനവും അതുപോലെ തന്നെ പിരിവുകളുമാണ് ജില്ലാ സമ്മേളനം സംസ്ഥാനസമ്മേളനം ഇങ്ങനെ ഉള്ള കുറെ കൂപ്പണുകളും അടിച്ചിറക്കി അവർ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴുള്ള അവരുടെ അജണ്ട അതായത് അവർ എപ്പഴും നിലകൊള്ളുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണെന്നും പറഞ്ഞ് കൊണ്ട് പക്ഷെ ജനങ്ങളിൽ നിന്നാണിവർ ഏറ്റവും കൂടുതൽ പിരിവുകളും നടത്തുന്നത് ഇവരുടെ ജില്ലാ സമ്മേന സമ്മേളനങ്ങളാകട്ടെ നേതാ നേതാക്കൻമാർ എവിടെ സമ്മേളനം നടത്തിയാലും എവിടെ പരിപാടികൾ നടത്തിയാലും അതിനുള്ള പിരിവുകളെല്ലാം ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നാണ് ഇവര് സമാഹരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരിപ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലെന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്